ആ കേട്ടില്ല ആ യെസ് എമിനാർ കുസിൻസ് ആണ് ആ അതെ കുറ്റുമുക്ക്

ഓ ഓക്കെ സാറ് പറഞ്ഞോളു എന്തെങ്കിലും ഫംഗ്ഷൻ ആണോ സാറെ ഓക്കെ സാറെ ഞങ്ങൾ ഫ്രീ ഡെലിവറി ഒരു മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഞങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ പോലീസ് അക്കാഡമി അടുത്തായത് അതിൻ്റെ ഉള്ളിലായത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാം കുഴപ്പമുണ്ടാവില്ല ഓ ബിസി ഒന്നും ഉണ്ടാവില്ല ഇന്ന് രാവിലെ ഞങ്ങൾ കിച്ചൻ ഓപ്പൺ ചെയ്യുന്നു ഞങ്ങൾ അപ്പം തന്നെയാണ് ബുക്കിംഗ് ഉള്ളത് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട ഓക്കെ ഓക്കെ ആ ഞാൻ നോട്ട് ചെയ്യാം നോട്ട് ചെയ്യാം

പുട്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് പുട്ടുണ്ട് പുട്ടുണ്ട് പുട്ടിന് ഒരു കുറ്റി ഇരുപത് ഒരു ഒരു കഷ്ണം ഒരു മൂന്ന് മൂന്ന് മൂന്ന് ഇതുണ്ടാവും ഓ ധാരാളം ധാരാളം

ലൂസാക്കിയിട്ട് കടലക്കറിയുണ്ട് അത് നല്ല ലൂസ് ഗ്രേവി അല്ല ഞങ്ങൾ നല്ല ഇച്ചിരി തിക്കായിട്ടുള്ളതാണ് ഞങ്ങൾ കൊടുക്കറുള്ളത് ഒരു സെമി ഗ്രേവി ടൈപ്പ് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ആ എടുത്തു ഓക്കെ വേറെ എന്തെങ്കിലും വേണൊ സാർ ആ ഇടിയപ്പം ഉണ്ടല്ലോ അത് ഒരു കൈപ്പത്തി കൈപ്പത്തിയുടെ അത്രയും ആ പന്ത്രണ്ട് ഇടിയപ്പം അതിന് വെജ്ജ് ഈ കുറുമയുണ്ട് മിക്സഡ് വെജിറ്റബിൾ കറിയുണ്ട് ഗ്രീൻ പീസ് ഉണ്ട് ഏ ആ ഈ മൂന്ന് കറിയുണ്ട് പിന്നേ നോൺ വെജ്ജ് കറി വേണമെങ്കിൽ ഞങ്ങൾ ദേ ഇപ്പം ചിക്കൻ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ കൊണ്ടാട്ടം അല്ലെങ്കിൽ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ എല്ലാം ഉണ്ട് സാറിന് ഏതാണ് വേണ്ടത് ഓക്കെ സാറിന് മൂന്ന് വെജ്ജ് കുറുമ വേറെ എന്തെങ്കിലും വേണൊ സാറെ ആ പ്ലേറ്റും കാര്യങ്ങളും അത് എക്സ്ട്രാ ചാർജാണ് അത് ഒരു പ്ലേറ്റിന് മൂന്ന് രൂപ വച്ച് ആ എത്രയാണ് സ്പൂണും സാധനങ്ങളും ഞങ്ങടേൽ ഉണ്ടാവില്ല അത് ഞങ്ങൾ വേണമെങ്കിൽ ആ ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങൾ വേണെയ് സാറിൻ്റെ കൈയിൽ കൊടുത്തയക്കാം അതിൻ്റെ സെപ്പറേറ്റ് ബില്ല് ഞാൻ തരാം ഓക്കെ സമയം എപ്പോഴാണ് ഓക്കെ സാറിൻ്റെ ഓഡറ് ഞാൻ ഒന്നു കൂടി ഒന്ന് പറഞ്ഞ് തരാം അത് കറക്റ്റാണോ നോക്കുക ഒരു മലബാറി ബിരിയാണി മൂന്ന് കുറ്റി പുട്ട് അതിൻ്റെ കൂടെ മൂന്ന് കടലക്കറി സ്പെഷ്യൽ കടക് കടലക്കറി പിന്നെ ഇടിയപ്പം ഒരു പന്ത്രണ്ട് ഇടിയപ്പം പിന്നെ അതിൻ്റെ കൂടെ കറി പറഞ്ഞില്ല സാറ് കറി ഏതായിരുന്നു ആ ഓക്കെ വെജ്ജ് വെജ്ജ് കുറുമ മൂന്നെണ്ണം ഓക്കെ അത് ഞാൻ അയച്ചിടാം ആ ഓക്കെ സാറിന് സാറെ ഒരു ക്യാഷ് ജിപേ ആയിട്ടല്ലേ അയയ്ക്കാം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പം ഈ നമ്പറിലേയ്ക്ക് പൈസ മതി